ഹലോ ആ പറഞ്ഞോ അതെ തീർച്ചയായിട്ടും കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് മൊത്തമായിട്ട് എന്നാ വേണ്ടേ നിങ്ങള്ക്ക് ഉം അത് എത്ര പീസാ നിങ്ങള് ബൾക്കായിട്ടെടുക്കാനാണോ ഉദ്ദേശിക്കുന്നേ

ആ നിങ്ങളേതൊക്കെ കടകളിലാണ് എത്ര കടകളിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നേ ഉം ഉം അപ്പോള് വസ്ത്രം ആ നിങ്ങളത് എങ്ങനാ നൈറ്റി തുണിയായിട്ടാണോ നൈറ്റി ആയിട്ടാണോ അതോ ചുരിദാർ പീസായിട്ടാണോ ആ നിങ്ങളെങ്ങനെയാണ് അതൊക്ക ഉദ്ദേശിക്കുന്നേ ഉം റെഡിമെയ്ഡ് നൈറ്റിയും വേണം ചുരിദാറിന്റെ തു നൈറ്റിയുടെ തുണി വേണം ചുരിദാറിന്റെ തുണി വേണം ആ ചുരിദാര് വേണം ഉം സാരി വേണം ആ അപ്പോള് നിങ്ങള് ആ അപ്പോഴതൊക്കയാണ് നിങ്ങളുദ്ദേശിക്കുന്നെ ആ അപ്പോള് പറഞ്ഞോളു ഉം ആ നിങ്ങള് ആ നിങ്ങൾ ആ നിങ്ങള് ഹോൾസെയിൽ വിലയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങള് അത് ബൾക്കായിട്ടാണ് എടുക്കുന്നേയെങ്കില് ഞങ്ങളതിന് വില കുറച്ചു തരും അതേസമയം നിങ്ങള് റിറ്റൈലായിട്ടാണ് എടുക്കുന്നതെങ്കില് ഞങ്ങളാ വിലയിട്ടാണു തരുന്നേ അപ്പോള് നിങ്ങള്ക്ക് വേണ്ട രീതിയില് മാന്യമായിട്ട് ഞങ്ങളൊരു വിലയിട്ട് തരും ആ ആ ആ അഞ്ച് രൂപ പത്ത് രൂപ വച്ചൊക്കെ നിങ്ങള്ക്ക് തരാം ഉം നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രം ഉം ആ ആ അങ്ങനെയുണ്ടെങ്കില് നിങ്ങള്ക്ക് ഞാൻ തരാം ഉം ബാക്കിയൊക്കെ നിങ്ങളെടുക്കുന്നേ എത്രയാണെന്നുവച്ചാല് നോക്കിയിട്ട് എത്രയാണെന്നു നോക്കിയിട്ട് തരാം കേട്ടോ ഉം ആ നിങ്ങളത് എത്രയാ എത്രയെണ്ണമാണ് എടുക്കുന്നേ എത്രയാ എടുക്കുന്നേന്ന് വെച്ചാല് ഞങ്ങളത് പറയാം കേട്ടോ ആ ആ ആ നിങ്ങള്ക്ക് എന്നത്തേക്കാ സാധനം വേണ്ടതപ്പോള് ഉം ഉം ഓക്കേ ഞങ്ങള് ഓണട് ആ നിങ്ങളതെടുക്കുന്നേ അനുസരിച്ച് ഞങ്ങള് കമ്മീഷൻറ്റെ വ്യവസ്ഥയില് ഞങ്ങളത് പറയാം നിങ്ങള്ക്ക് കേട്ടോ ആ നിങ്ങള്ക്കത് ഞങ്ങളെടുക്കുന്ന കണക്ക് ഞങ്ങളത് നോക്കി നിങ്ങള്ക്ക് തരാം ഉം ആ കമ്മീഷൻ തരാം ഓക്കേ ആ നിങ്ങള്ക്ക് എന്നാ എന്നത്തേക്കാണ് ഓണത്തിന്റെ ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ട് അപ്പോള് അപ്പഡ്വാൻസ് നിങ്ങള് നിങ്ങള് അങ്ങനെയല്ല നിങ്ങളൊരു അങ്ങനെയല്ല നിങ്ങളിപ്പോള് എന്റെ കയ്യീന്ന് ഒരു പീസ് നൈറ്റി തുണിയാണ് എടുക്കുന്നേങ്കിൽ അതൊരെണ്ണത്തിന് റിറ്റൈലായിട്ട് ഞങ്ങള് വില്ക്കുന്നത് നൂറ്റി നാല്പ്പത്തഞ്ചിനായിരിക്കും അപ്പോള് നിങ്ങള് ചിലപ്പോള് ഹോൾസെയിലായിട്ട് അതൊന്നിച്ച് ഒരു ബൾക്കായിട്ട് അമ്പതെണ്ണമോ നൂറെണ്ണമോ എടുക്കുകയാണെങ്കില് ഞങ്ങള് ചിലപ്പോള് നിങ്ങള്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ചിന് തരും അപ്പോഴവിടെ ഇരുപത് രൂപാ വെച്ച് നിങ്ങള്ക്ക് ലാഭം കിട്ടും പറഞ്ഞതു മനസിലായോ ഒരെണ്ണത്തിൻറ്റെ പുറത്ത് ഉം ഉം പറഞ്ഞോ വിറ്റു പോയി ആ വിറ്റു പോയില്ലെങ്കിൽ ഞങ്ങളത് തിരിച്ച് ഓ തിരിച്ചെടുക്കത്തൊന്നുമില്ല തിരിച്ചെടുക്കത്തൊന്നുമില്ല ഞങ്ങളത് ഉം എന്നുവച്ചാല് ഞങ്ങളത്രയും വില കൊറ അല്ല ഞങ്ങളത്രയും വില കുറച്ചല്ലേ നിങ്ങള്ക്കിപ്പോള് ബൾക്കായിട്ട് തരുന്നത് അതുകൊണ്ടാണ് അത് നിങ്ങൾ പിന്നെയും പല കടകളിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വീടുകളിൽ കൊടുക്കുകയോ ചെയ്യണം അത് നിങ്ങളുടെ സെയിലാണ് ഉം അത് നിങ്ങളാ പീസ് നൈറ്റി പീസാണെങ്കില് ആരെങ്കിലേം കൊണ്ട് തയ്പ്പിച്ചൊക്കെ കൊടുക്കണം ആ അപ്പോള് നിങ്ങള്ക്ക് തരുന്നതിനകത്ത് ഞങ്ങളെമൗണ്ട് കുറയ്ക്കും ലാഭവിഹിതത്തില്നിന്ന് ഞങ്ങളൽപ്പം കുറയ്ക്കും അങ്ങനാണെങ്കില് ഞങ്ങളിപ്പോള് ഇരുപത് രൂപാ വെച്ചല്ലേ നിങ്ങള്ക്കൊരു പീസിന് ലാഭം തരുന്നേ ആ പീസ് നിങ്ങള്ക്ക് വിറ്റു പോയില്ലെങ്കില് ആ ഇരുപത് നിങ്ങള്ക്ക് തരത്തില്ല ഞങ്ങള് നൂറ്റിനാൽപ്പത്തിയഞ്ച് വെച്ചേ വിലയിട്ട് തരത്തുളളൂ അപ്പോ ഉം ആ അപ്പോഴങ്ങനെയാണ് ഉം ആ ശരി എന്നാല് ഓക്കേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോര് സ്വാഗതം ഉം